ചിത്രരചന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ എന്നുള്ളത് ചിത്രരചനയാണ് അപ്പം ഞാനതിൽ എത്ര സമയവും ഞാനതിൽ ചെലവഴിക്കാറുണ്ട് മണിക്കൂറോളം ചെലവഴിക്കാറുണ്ട് അപ്പം ചിത്രരചന എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വശം എന്ന് പറഞ്ഞാൽ കുറേ കുറേ ആൾക്കാരുകളൊക്കെ തിങ്ങി നിൽക്കുന്ന അങ്ങനെത്തെയൊക്കെ ചിത്രങ്ങൾ ഞാൻ എനിക്ക് ഭയങ്കര വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഓരോരോ ആൾക്കാരെ എടുത്ത് എടുത്ത് വരയ്ക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടതും ആ ഒരു ഒരു സ്പെസിഫിക്കായിയിട്ടുള്ളൊരു സ്പേസ് തന്നെ നമുക്ക് അത്ര ആൾക്കാരെ വരയ്ക്കാൻ കഴിയുള്ളൂ അപ്പം അത് നല്ല ക്ലീന് ആയിട്ടും പേർഫെക്റ്റായിട്ടും കിട്ടണമെങ്കിൽ അത്യാവശ്യം കുറച്ച് വെല്ലുവിളി നിറഞ്ഞൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ നല്ലം കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെയൊക്കെ കുറേ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ആൾക്കൂട്ടത്തിലൊക്കെ വരക്കുന്നത് ആൾക്കൂട്ടങ്ങളെ വരയ്ക്കുന്നത് ഓക്കെ പിന്നെ ഞാനങ്ങനെ ഇത് മാറികടക്കാറ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് വെച്ച മുമ്പത്തെ ചിത്രങ്ങളൊക്കെ ഞാൻ നോക്കി എനിക്കുതന്നെ ഉള്ളിലൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ഞാൻ കുറേ ടൈമെടുത്ത് ടൈമെടുത്ത് ടൈമെടുത്താണ് ഓരോ ചിത്രങ്ങളും ഞാൻ വരച്ച് തീർക്കാറ് അതായത് ഓരോരോ ക്രൗഡ് അതുപോലെ ആൾക്കൂട്ടങ്ങളെ ആൾക്കൂട്ടങ്ങളിൽനിന്ന് ആകുട്ടങ്ങളെ ഞാൻ വരയ്ക്കുന്നത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അതൊരു വെല്ലുവിളിയായിട്ടും അതുപോലെത്തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനങ്ങനെ മറികടക്കുന്നത് കുറേ കോൺഫിഡൻസൊക്കെ വരച്ച് എനിക്ക് തന്നെ ഇത് വരയ്ക്കാൻ കയിയുമെന്നുള്ള ഒരു ഇതിലൂടൊക്കെയാണ് ഞാൻ അതിനെ മറികടക്കാറ് പിന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാെണ് എന്ന് പറഞ്ഞാൽ ഈ ക്രൗഡ് കുറേ ആൾക്കൂട്ടങ്ങളിൽനിന്നൊക്കെ വരയ്ക്കുന്നത് അതുപോലെത്തന്നെ നല്ല പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വീട് അതൊക്കെ വീട് പൂക്കളാൽ പൂക്കളാൽ മെനഞ്ഞ ഒരു വീട് അതൊക്കെ ഞാൻ കുറേ വരച്ച് കുറേ വരച്ചിട്ടാണ് എനിക്കതൊക്കെ ഒരു ഒരു പെർഫെക്റ്റായിട്ട് കിട്ടിയത് അതുപോലെത്തന്നെ മനുഷ്യൻ്റെ മൂക്ക് അതുപോലെത്തന്നെ ആ ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ സ്ട്രക്ച്ചറൊക്കെ ഞാൻ എനിക്ക് കുറച്ച് കൂടിയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ വരയ്ക്കാൻ പിന്നെ ഞാനിങ്ങനെ പരിശീലിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനത് ഒന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അച്ചടിക്കും അച്ചടിച്ചിട്ട അതിൻ്റെ മേൽക്കൂടെ കുറേ കുറേ വരച്ച് വരച്ച് വരച്ച് വരച്ച് എനിക്കുതന്നെ ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ ഞാൻ വേറൊരു പേജ്ക്കാക്കിയിട്ട് ഞാൻ വരച്ച് നോക്കും അങ്ങനെയാണ് ഞാൻ കൂടുതലും വരച്ചിട്ട് പരീക്ഷിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാൻ